എൻറെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേ കൂളർ ആണ് അപ്പോൾ കൂളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ മഴക്കാലത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂളറിന്റെ ഒരാവശ്യമില്ല വേനൽക്കാലത്ത് നമുക്ക് കൂളർ ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടുള്ളൊരു ടൈം ഒക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ മഴ എന്നും തണുപ്പ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കാണാൻ കിട്ടാത്ത ഒരവസ്ഥയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ അതായത് വീട്ടിൽ കൂടുതൽ ഇരിക്കുന്ന ടൈംമുകളൊക്കെ നമ്മൾ കൂളർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കൂളർ യൂസ് ചെയ്യുന്നതെന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ല ശരീരത്തിന് നമ്മുടെ നല്ലൊരു എന്താണ് പറയുക ചൂടുള്ള ടൈം ഒക്കെ നമ്മുടെ ശരീരം വല്ലാണ്ട് വിയർക്കും ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ മെയിൻ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കൂളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മളെ ഫ്രിഡ്ജിൽ നിന്നുള്ള ക്യൂബ് അതായത് തണുത്ത ഐസ്ക്യൂബ് എടുത്ത് നമ്മൾ അതിനകത്ത് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ല എ സിയിലിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഫീൽ കിട്ടും അപ്പോൾ നല്ല തണുപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ കൂളർ ഒക്കെ യൂസ് ചെയ്യുന്നത് കൂളറിന്റെ കാറ്റും ഈ എ സിൻ്റെ എ സി പോലെ ഉണ്ടാവും അപ്പം അതിനാണ് നമ്മൾ കൂളർ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഫാൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ എളുപ്പമായിരിക്കും പക്ഷേ കൂളർ കുറച്ച് വെയിറ്റ് കൂടുതലൊക്കെയുള്ളത് കൊണ്ടൊക്കെയാണ് എങ്കിൽ കുറച്ച് റിസ്ക് ആണ് പിന്നെ ഈ വെള്ളം അതായത് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കൊണ്ടിടുന്ന ഐസ് വെള്ളമാവും വെള്ളമായി കഴിയുമ്പോൾ അതെടുത്ത് മാറ്റാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാര്യമാണ് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ് എന്നൊക്കേ പറഞ്ഞുകഴിഞ്ഞാൽ അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ബാക്കി കുഴപ്പമൊന്നുമില്ല കാറ്റൊക്കെ നമുക്ക് നമുക്കിപ്പോൾ കാറ്റൊക്കെ അടിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്